മാധ്യമ മാധ്യമങ്ങളിൽ ഇന്ന് കാണുന്ന വാർത്തകളെല്ലാം സത്യമാകണമെന്നില്ല അവർക്ക് വാർത്തകൾക്ക് അവരുടെ അവർക്ക് വാർത്ത വാർത്തകൾ അവർ അവരുടെ തായ ഇതിന് വേണ്ടി മാത്രം കൂടുതൽ വാർത്തകൾ ഇവർ വിടുന്നു അതനുസരിച്ച് നമ്മളിത് വാർത്ത വായിച്ചിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പത്രത്തിലെന്നല്ല സോഷ്യൽ മീഡ്യേലൂടെ ആണെങ്കിൽപ്പോലും ഈ വരുന്ന വാർത്തകളെല്ലാം സത്യമാകണമെന്നില്ല അവർ അവരുടെ പ്രശസ്തിക്ക് വേണ്ടി മാത്രമാകും ഒരു പക്ഷെ ഈ വാർത്തകൾ വലിയ ഇതായി കാണിക്കുകയും ചിത്രീകരിക്കുന്നതും എല്ലാം അതുകൊണ്ട് നമ്മൾ ഈ വാർത്തകളെല്ലാം വിശ്വസിക്കണമെന്നില്ല ഇതിൽ ഒരു കുറച്ച് ശതമാനം സത്യമായ വാർത്തകളുമായിരിക്കും എന്നിരുന്നാൽപ്പോലും എല്ലാം സത്യമാകണമെന്നില്ല